മൃഗപരിപാലനം എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ താല്പര്യമുള്ള ഒരു വിഷയമാണ് മൃഗങ്ങളെ പരിചരിക്കുകയും അവയ്ക്ക് ആവിശ്യമായ ആ ഭക്ഷണവും വെള്ളവുമൊക്കെ നൽകി അവയെ പരിപാലിക്കുമ്പോൾ ഒരുപാട് സന്തോഷം അനുഭവിക്കാറുണ്ട് അപ്പം മൃഗപരിപാലനം എന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടുന്ന ഒര് കാര്യം കൂടിയാണ് എന്നെ സംബന്ധിച്ചടത്തോളം വളരെ ചെറുപ്പം മുതൽ തന്നെ ഞാൻ കാർഷിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ജനിച്ച് വളർന്നത് ആയതിനാൽ അവിടെ ഒരുപാട് പശുക്കളും ആടുകളൂം കോഴികളുമൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്ത് അച്ഛനും അമ്മയും അവയെ പരിചരിക്കുന്നത് കാണുമ്പോൾ എനിക്കും വളരെ താല്പര്യം തോന്നുകയും ഞാനും അതിനൊക്കെ പോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മൃഗപരിപാലനം എന്നത് ചെറുപ്പം മുതൽ തന്നെ എനിക്ക് വളരെയേറെ താല്പര്യമുള്ളൊരു വിഷയമായി തീരുകയും ചെയ്തു പിന്നീട് വേറെ താമസിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഒക്കെ വന്നപ്പോൾ മൃഗപരിപാലനം തുടർന്ന് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിഞ്ഞത് ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അച്ഛനും അമ്മയുമൊക്കെ ഈ മൃഗങ്ങളെ പരിപാലിക്കുന്നത് കണ്ട് വളർന്നത് കൊണ്ടുണ്ടായ താല്പര്യം കൊണ്ടാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ കുറെയേറെ പശുക്കളും ആടുകളുമൊക്കെ ഉണ്ടായിരുന്നു അവയെല്ലാം വളരെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പരിപാലിക്കുകയും നല്ല അവയ്ക്ക് ആവിശ്യമായ നല്ല ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ വളർന്നത് എൻ്റെ വീട്ടിൽ ഒരു തൊഴുത്തിൽ ഏതാനും പശുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ അവയെ പരിചരിക്കുന്നത് പുറമേ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും മാത്രമായിരുന്നു അവയെ പശുത്തൊഴുത്തിൽ കയറി ചാണകം മൂത്രം എന്നിവ നീക്കം ചെയ്ത് പശുക്കളെ കുളിപ്പിച്ച് വൃത്തിയുള്ളതാക്കി നിർത്തിയതിന് ശേഷം മാത്രമായിരുന്നു പശുക്കറവ നടത്തിയിരുന്നത് അപ്പോൾ എന്നും അതിരാവിലെ തന്നെ അച്ഛനും അമ്മയും എഴുന്നേൽക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നത് ഞാൻ ദിവസേനെ കാണുമായിരുന്നു ശേഷം പിന്നീട് ഇത് കണ്ട് വളർന്ന ഞാൻ എൻ്റെ ജീവിതത്തിലും ഇവയെല്ലാം പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു പശു ഫാം തുടങ്ങുകയും അവിടെ മറ്റു ജില്ലകളിൽ നിന്നും പശുക്കളെ ഇറക്കുമതി ചെയ്യുകയും ഒരു തൊഴിലാളിയെ നിർത്തിക്കൊണ്ട് ആ പശു സംരക്ഷണം തുടരുകയും ചെയ്തു ഇതിനെല്ലാം എന്നെ സഹായിച്ചത് എൻ്റെ ഒപ്പം നിന്നത് എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയുമായിരുന്നു പശുക്കളെ പരിപാലിക്കുന്നതിനായി എനിക്ക് ഞങ്ങളൊരു സഹായിയെ നിർത്തുകയും അങ്ങനെ ഞങ്ങള് കുറച്ച് നല്ല വിപുലമായ രീതിയിൽ കൂടുതൽ പശുക്കളെ ഇറക്കി നല്ല രീതിയിലൊരു പശു ഫാം നടത്തുകയും ചെയ്യുന്നുണ്ട് പശു സംരക്ഷണത്തിന് എന്നെ സഹായിക്കുന്നത് ഭർത്താവും എൻ്റെ അമ്മയുമാണ് ഞങ്ങൾ ആധുനിക രീതിയിലുള്ള ഒരു തൊഴുത്ത് നിർമ്മിക്കുകയും അതിൽ പശുക്കൾക്ക് ആവിശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കി അത് ഓട്ടോമാറ്റിക്കായി വെള്ളം നിറയുന്ന സംവിധാനങ്ങളൊക്കെ നിർമ്മിച്ച് പശുക്കൾക്ക് വളരെ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷമൊരുക്കിയിട്ടാണ് പശു സംരക്ഷണം വളർത്തലും ആരംഭിച്ചത് അതിന് മുൻപായി ഞങ്ങൾ നിറയെ തീറ്റ പുല്ല് നട്ട് നട്ട് വളർത്തി പരിസരത്താകെ പശുക്കൾക്കുള്ള പുല്ല് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ പശുക്കളെ കൊണ്ടുവന്നത് ഒരു തൊഴുത്തിൽ ഇപ്പോൾ എനിക്ക് പത്ത് പശുക്കളാണ് ഉള്ളത് അതിൻ്റെ കുഞ്ഞുങ്ങളെ അതായത് കന്ന് കുട്ടികളെ മാറ്റി പശുവിൻ പശുക്കളെ മാത്രമാണ് തൊഴുത്തില് കെട്ടുക കന്നുകുട്ടികളെ കെട്ടാൻ തൊട്ടടുത്ത് തന്നെ വേറെയൊരു ഷെഡുമുണ്ട് രാവിലെ തന്നെ നമ്മൾ തൊഴുത്തിൽ പ്രവേശിച്ച് അതിൻ്റെ ചാണകം മൂത്രം ഇവയൊക്കെ നീക്കം ചെയ്ത് പശുക്കളെ വെള്ളമടിച്ച് കുളിപ്പിക്കും അതിന് ശേഷമാണ് പശുക്കറവ ആരംഭിക്കുന്നത് അതിന് ശേഷം പശുക്കൾക്ക് തീറ്റയും വെള്ളവും നൽകും പശുത്തൊഴുത്തിൽ തന്നെയാണ് നമ്മൾ പശുക്കളെ കെട്ടുന്നത് പുറത്ത് ഇടയ്ക്കൊക്കെ മാത്രമേ പുറത്തിറക്കി കെട്ടാറുള്ളൂ പശുത്തൊഴുത്തിലാണ് പശുക്കളെ പരിപാലിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ പശുക്കൾക്ക് ആവിശ്യമായ തീറ്റയും വെള്ളവും മറ്റും കറവയ്ക്ക് ശേഷം കൊടുത്തതിന് ശേഷം ചില ദിവസങ്ങളിൽ പശുക്കളെ പുറത്തേക്ക് ഇറക്കി കെട്ടാറുണ്ട് അവയ്ക്ക് വെയിലും വെളിച്ചവും ഒക്കെ കൊള്ളാനാണത് അതിന് ശേഷം തിരിച്ച് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കറവയുടെ സമയം ആകുമ്പോൾ അവയെ തിരിച്ച് നമ്മൾ കൂട്ടിനകത്ത് പശുക്കൂടിന് പശുത്തൊഴുത്തിൽ കയറ്റി ഒന്നുകൂടി കുളിപ്പിക്കും അതിന് ശേഷമാണ് വൈകുന്നേരത്തെ കറവ തുടങ്ങുന്നത് ശേഷം അവയെ നമ്മൾ കറന്ന പാല് കറന്നെടുത്തതിന് ശേഷം വെള്ളവും തീറ്റയും നൽകി പശുക്കളെ തൊഴുത്തില് സംരക്ഷിക്കും ഇനി ആടുകളും ഉണ്ട് ആടുകളെ താരതമ്യേനെ സംരക്ഷിക്കാൻ വളരെ എളുപ്പമാണ് അവയ്ക്ക് ഇലകളും മറ്റും കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ അവ അത് പിന്നെ തിന്നോളും അതിന് നമുക്ക് പ്രത്യേകിച്ച് പരിപാലനം ആളു ആടുകൾക്ക് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ആവിശ്യമില്ല പശു പരിപാലമാണ് നമുക്ക് കുറച്ചു കൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കാരണം പശുത്തൊഴുത്തിൽ ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിന് അതിനാൽ പശുത്തൊഴുത്ത് എപ്പോഴും അണുവിമുക്തമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെയുള്ളത് കോഴികളാണ് കോഴികൾ പിന്നെ കൂട്ടിൽ തന്നെ ആയതിനാൽ അവയെ പുറത്തിറക്കുക എന്നത് കുറച്ച് ശ്രമകരമായ പണിയാണ് ആയതിനാൽ കോഴികളെ നമ്മൾ കൂട്ടിൽ തന്നെയാണ് പരിപാലിക്കുന്നത് വൈകുന്നേരങ്ങളിൽ ഒരു നേരം അവയെ പുറത്തിറക്കാറുണ്ട് ഇരുപത് കോഴികളുള്ള ഒരു കൂടാണ് ഞങ്ങൾ ഇപ്പോൾ വീട്ടിലുള്ളത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇരുപത് കോഴികളും ആണ് നാടൻ കോഴികളാണ് ഉള്ളത് അവയ്ക്കുള്ള തീറ്റയും വെള്ളവുമെല്ലാം കൂട്ടിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കൂട് വൃത്തിയാക്കാനായി അവയെ പുറത്തേക്ക് വൈകുന്നേരങ്ങളിൽ വിടാറുണ്ട് കോഴി വളർത്തല് വളരെ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ആട് വളർത്തലും പിന്നെയുള്ളത് ഒരു നായ് കുട്ടിയാണ് മൃഗങ്ങളെ പരിപാലിക്കുമ്പോൾ അവയോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മള് വളരെയേറെ സന്തോഷം അനുഭവിക്കാറുണ്ട് കാരണം അവയെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെപ്പോലെയാണ് ഞങ്ങൾ കുടും മറ്റ് മൃഗങ്ങളെയെല്ലാം കാണുന്നത് ആയതിനാൽ അവയെ സംരക്ഷിക്കുന്നതില് വളരെയേറെ സന്തോഷം തോന്നാറുണ്ട് പശുകുട്ടികളോടായാലും ആ ആ ആട്ടിൻ കുഞ്ഞുങ്ങളോടായാലും ഒക്കെ സംസാരിക്കുകയും അവയെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് തോന്നുന്ന സ്നേഹവും വാത്സല്യവുമാണ് തോന്നാറുള്ളത് പ്രത്യേകം മൃഗപരിപാലനത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാം തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കാതെ നമ്മൾ തന്നെ ഒരു മേൽനോട്ടം നോക്കി നടത്തിയും വേണം ഈ മൃഗങ്ങൾക്ക് ഇടയിൽ എപ്പോഴും നമ്മളുണ്ടാകണം നമ്മുടെ സ്നേഹസാമീപ്യം അവ തിരിച്ചറിയുക തന്നെ ചെയ്യും ആയതിനാൽ എപ്പോഴും അവയോട് കരു കരുതലോടും കരുണയോടും കൂടി വേണം ഇടപെടാനായി പശുത്തൊഴുത്തിൽ നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതെ അണുനശീകരണം നടത്തുക തന്നെ വേണം ആട്ടിൻ കൂട്ടികളെ ആ ആട്ടിൻ പറ്റത്തെയും ഇടയ്ക്ക് ഇടയ്ക്ക് വെളിയിൽ എറക്കാറുണ്ട് അത് അവയുടെ കൂട് വൃത്തിയാക്കാനും മറ്റുമായി ഇടയ്ക്ക് ഇടയ്ക്ക് അവയെ പുറത്തിറക്കാറുണ്ട് കോഴി വളർത്തലിലും ആടു വളർത്തലിലും പശു വളർത്തലിലും എനിക്ക് അതീവ സംതൃപ്തിയും സന്തോഷവുമാണ് ഉള്ളത് മൃഗപരിപാലനം എന്നെ സംബധിച്ചെടത്തോളം വളരെയേറെ സംതൃപ്തി തരുന്നതും സന്തോഷം തരുന്നതുമായ ഒരു സംഭവമാണ് ഈ എല്ലാ സംഭവ ഈ എല്ലാ പ്രവത്തനങ്ങൾക്കും എന്നെ സഹായിക്കുന്നത് എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയുമാണ് ഇരുവരും ഇരുവരും കൈ മെയ് മറന്നുള്ള സഹായം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മൃഗപരിപാലം വളരെ അനായാസകരമായി കൊണ്ടുപോകാനായി കഴിയുന്നു ഇതിനെല്ലാം പുറമേ ഒരു തൊഴിലാളി മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത് അവരും ഞങ്ങളെ ഈ പ്രവർത്തനത്തിൽ വളരെയേറെ സഹായിക്കുന്നുണ്ട്